ജനിച്ച ഉടനെയുള്ള പശുകുട്ടിയാണെങ്കി നമുക്ക് ജനിച്ചപാടെ അതിൻ്റെ മൂക്കില് പശുവിൻ്റെ പാട കുടിങ്ങിട്ടുണ്ടോന്നൊ ഗർഭപാത്രത്തീന്ന് വന്ന എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊ അത് കുടിച്ചിട്ടുണ്ടോന്നോ ഒക്കെ ശ്രദ്ധിച്ച് മൂക്കിൽ നിന്ന് പടയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി നല്ല ഒരു സ്ഥലത്തേക്ക് മാറ്റാം നല്ല ഒരു സ്ഥലത്ത്ന്നുവച്ചാൽ തൊഴുത്തിന്ന് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം അത് പാലിന് കുടിക്കാൻ എണീക്കാം എണീക്കുന്നുണ്ടോ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിനു ശേഷം എണീക്കാൻ പറ്റുന്നില്ലെ എന്നാണെങ്കില് പാല് കറന്നിട്ട് നമുക്ക് നിപ്പിളിലോ കപ്പിലോ ആക്കീട്ട് കന്നുകുട്ടിക്ക് കൊടുക്കാം പിന്നെ പുല്ല് തിന്നാൻ തുടങ്ങുന്നതനുസരിച്ച് പുല്ലും കാടിവെള്ളവും കഞ്ഞിവെള്ളവും കാലിത്തീറ്റയെല്ലാം കൊടുത്ത് റെഡിയാക്കാം പിന്നെ വിരേൻ്റെ മരുന്ന് അങ്ങനെ കാൽസ്യത്തിന് മരുന്ന് അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് വലുതാക്കിയെടുക്കാം